ഈ കഴിഞ്ഞ മാർച്ച് പത്തിന് എനിക്കൊരു കല്യാണ പരിപാടി ഉണ്ടായിരുന്നു ആ സമയത്താണ് ഞാനൊരു കമ്മൽ ആമസോൺ വഴി ഓർഡർ ചെയ്തത് ഏതാണ്ട് അഞ്ഞൂറ് രൂപയായിരുന്നു ആ കമ്മലിൻ്റെ വില മാർച്ച് പത്തിന് ഓ ഓർഡർ ചെയ്ത് ആ കമ്മല് പക്ഷേ എനിക്ക് കിട്ടിയത് മാർച്ച് ഇരുപത്തഞ്ചിനായിരുന്നു വളരെ നീണ്ട സമയം തന്നെ എടുത്തു എനിക്ക് ആ കമ്മല് കിട്ടാന് ഏതാണ്ട് വളരെ അ എനിക്ക് ആ പരിപാടിക്ക് എന്റെ കല്യാണ പരിപാടിക്ക് അതുകൊണ്ട് തന്നെ എനിക്കാ കമ്മല് ഓർഡറ് ചെയ്ത കമ്മലെനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഞാന് വേറൊരു കമ്മല് ഞാനെൻ്റെ അടുത്തുള്ള കടയിൽ പോയിട്ട് വാങ്ങിക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ എന്നെ എനിക്ക് അഞ്ഞൂറും അഞ്ഞൂറും ആയിരം രൂപ തന്നെ നഷ്ടമായി ഇനി ഇരുപത്തിയഞ്ചിന് എത്തിയ കമ്മലാണെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച അത്ര ഒരു ഭംഗിയൊന്നും ആ കമ്മലിനുണ്ടായിരുന്നില്ല അതിൻ്റെ രണ്ട് കല്ലുകള് തന്നെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ കമ്മലിൻ്റെ ഭംഗി ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇനി ആ ഞാൻ പ്രതീക്ഷിച്ച ഐറ്റമായിരുന്നില്ല എനിക്ക് കിട്ടിയിരുന്നത് ആമസോൺ വഴി അതുകൊണ്ട് തന്നെ ഞാന് വളരെ അധികം മോശമായ രീതിയിലായിരുന്നു എനിക്കവരുമായിട്ടുള്ള ഒരു ഡെലിവറി അവര് നൽ നൽകിയത് അതുകൊണ്ട് തന്നെ ഞാന് ആമസോൺ വഴി ഈ കമ്മല് കമ്മലും മാല പോലെയുള്ള സാധനങ്ങള് ഓർഡർ ചെയ്യുന്നത് നിർത്തലാക്കി തുടർന്ന് ഇനിയും ഇതുപോലുള്ള കമ്മലുകള് ഒരു കമ്മലിന് വേണ്ടിയിട്ട് അവര് പത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ദിവസം എടുത്തെങ്കില് എടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് തുടർന്ന് ആ ഒരു കമ്മല് വാങ്ങാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഓൺലൈനിൽ കൂടെ അതുകൊണ്ട് തന്നെ ഇത്രയും ചെറിയ സാധനങ്ങള് ഇനി ഞാന് പുറത്ത് തന്നെ പുറത്ത് നിന്ന് കടയിൽ നിന്ന് തന്നെ നേരിട്ട് വാങ്ങാമെന്ന് വിചാരിക്കുന്നു കാരണം സമയം ലാഭിക്കാൻ വേണ്ടിയായിരുന്നു ഞാന് ആമസോൺ വഴി ഓർഡറ് ചെയ്തത് പക്ഷേ അവരത് കറക്റ്റ് സമയത്ത് കിട്ടിയില്ല എനിക്ക് ആ കല്യാണ പരിപാടിക്ക് ഞാൻ പ്രതീക്ഷിച്ച ഒരു കമ്മലിടാൻ എനിക്ക് സാധിച്ചില്ല അതെനിക്ക് ഭയങ്കര വിഷമമായി പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ ആമസോണിന് ഒരു കത്തും ഫോൺ വഴി അയച്ചിട്ടുണ്ടായിരുന്നു ഒരു തെറ്റായ ബാഡ് റിവ്യൂസ് കൊണ്ട് അതുകൊണ്ട് ഞാനിനി ആ കമ്മല് ഇനിയും ഞാനതുപോലെയുള്ള ഓഡ് ഓ ഓൺലൈൻ വഴി ഞാനിനി ആ കമ്മല് കമ്മല് മാല പോലുള്ള സാധനങ്ങൾ പെട്ടെന്ന് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇനി ഒരിക്കലും ആ ആമസോൺ പോലെയുള്ള ഒരു കമ്പനിയെ സമീപിക്കില്ല കാരണം വളരെ മോശമായിട്ടുള്ളൊരു സമീപനമായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്